ഹലോ എടാ നീ എന്നെ ഒന്ന് സഹായിക്കുമോ എടാ ഞാൻ മറ്റേ മറ്റേ അക്കാദമിക്ക് ഫയല് എല്ലാം മറ്റേ ഡീജിലോക്കറിലാ സൂക്ഷിച്ചിരുന്നത് അതാണെങ്കിൽ എനിക്കിപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അത് ഞാനാണെങ്കിൽ അതിൻ്റെ പാസ്വേഡും മറന്നുപോയി ഞാനന്ന് നിന്നോട് പറഞ്ഞായിരുന്നില്ലേ ഞാൻ മറ്റേ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ പോവാണെന്ന് അതുകൊണ്ട് ഇതിപ്പോൾ ഓപ്പൺ ആക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്കാ ഫയല് എന്തായാലും വേണം അത് ഉണ്ടെങ്കിലാണ് അവിടെ ഇതാക്കാൻ പറ്റുള്ളൂ അഡ്മിഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അതെന്താ പറ്റിയത് എന്നറിയില്ല ഞാൻ പാസ്വേർഡ് ഇവിടെ എഴുതി വെച്ചിരുന്നു പക്ഷെ നോക്കിയിട്ട് കാണുന്നും ഇല്ല അപ്പം നീ പിന്നെ നേരത്തെ ഇത് യൂസ് ചെയ്ത് ശീലം ഉള്ളതുകൊണ്ട് നിനക്കിതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടല്ലോ അപ്പം നീയെന്നെ ഒന്ന് സഹായിക്കുമോ ഇതൊന്ന് ഇതാക്കുന്ന് പാസ്വേഡ് ഒക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ആ ഓക്കെ ആ ഓക്കെ ഓക്കെ ഓക്കെ എടാ പക്ഷേ ഇത് പെട്ടെന്നുതന്നെ എല്ലാം ഇതാക്കാൻ പറ്റില്ലേ പെട്ടെന്നുതന്നെ കിട്ടില്ലേ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ആടാ ഓക്കെ ശരി ഓക്കെ ടാങ്ക് യൂ കേട്ടോ